ക്ലാസ്സില്ലാത്ത ദിവസമൊക്കെ ഞാൻ ഏറെക്കുറേ പാചകം ചെയ്യാറുണ്ട് ഒരു മാക്സിമം രണ്ട് രണ്ട് മണിക്കൂറൊക്കെ പാചകം ചെയ്യും മാക്സിമം പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തുണ്ടാക്കിയൊരു സംഭവമെന്ന് പറഞ്ഞാല് ചിക്കൻ കറിനെയാണ് ആദ്യം ഉണ്ടാക്കിയപ്പോൾ ശരിയായില്ല പക്ഷേ രണ്ടാമതുണ്ടാക്കിയപ്പോൾ ശരിയായി